ഒരു യാത്ര പോകാണെങ്കിൽ ക്യാമറ ഉള്ളത് എപ്പോഴും നല്ലതാണ് കാരണം ഫോട്ടോഗ്രാഫി നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകൾ എടുത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അവൾ ഫാമിലീടെ ഒപ്പമാണ് പോകുന്നെങ്കിൽ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്ത് മുമന്റ്സ് അത് മെമ്മറിയായിട്ട് നമുക്കെപ്പോഴും ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും അതിന് പുറമെ ഫ്രെൻഡ്സായിട്ടാണ് പോകുന്നേങ്കിലും ഇതുപോലെ തന്നെ വീഡിയോസായിട്ടാണേലും നമുക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കാനും പോസ്റ്റ് ചെയ്യാനും എല്ലാമായിട്ട് സാഷിക്കും സാധിക്കും പിന്നെ കണ്ണിനു കുളിർമയേകുന്ന ഓരോ ഫോട്ടോസ് നമുക്ക് എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ അനിമൽസ് വൈൽഡ് അങ്ങനെ ഫോറസ്റ്റ് അങ്ങനെ ഓരോരോ ഫോട്ടോസായിട്ട് നമുക്ക് എടുക്കാനും പിന്നെ നാട്ടുകാരുടെയും അങ്ങനെ തൊഴിലായിട്ട് ചെയ്യുവാണെങ്കിൽ ഫോട്ടോഗ്രാഫി നല്ലതാണ് വെഡ്ഡിങ്ങായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആ യൂറ്റൂബിൽ നമുക്ക് വീഡിയോ ഇടാനൊക്കെ സാധിക്കും നമ്മുടെ വേറൊരു രാജ്യത്തോട്ടോ അല്ലെങ്കിൽ വേറെ ഏതേലും സ്ഥലത്തോട്ടോ വീഡിയോ എടുത്തു കൊണ്ട് പോകുവാണെങ്കിൽ നമുക്ക് വ്ളോഗറായിട്ട് എടുത്ത് യൂറ്റൂബിൽ വീഡിയോ ഇടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടേതായ പല കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഫാമിലീടെ ആണേലും നമ്മുടെ കൂട്ടുകാർക്ക് വേണേലും ഫോട്ടോയെടുത്ത് കൊടുത്ത് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് നന്നായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് ഇതുണ്ടെങ്കിൽ മാഗസീൻ എഡിറ്റേഴ്സ് മാഗസീൻ ഫോട്ടോഗ്രാഫർ പിന്നെ സിനിമയിലോട്ട് ആക്റ്റേഴ്സിൻ്റെ ഫോട്ടോയെടുക്കാൻ വേണ്ടി മോഡൽ ഫോട്ടോ ഷൂട്ടിങ് അങ്ങനെയുള്ള വെവ്വേറെ പല കാര്യങ്ങൾക്കും തൊഴിലായിട്ട് ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടും നല്ല ഇൻകവും കിട്ടും നമുക്ക് പിന്നെ നല്ല രീതിയിൽ ഫാമിലി ആയിട്ടും എല്ലാം സാധിക്കും